സ്റ്റാമ്പ് നാണയം എന്നിവയുടെ എക്സിബിഷനിലൊന്നും ഞാൻ ഇതുവരെയും പങ്കെടുത്തിട്ടില്ല പക്ഷേ എനിക്ക് അതിൻ്റെ രണ്ടിൻ്റെയും കളക്ഷൻ ഉണ്ട് കാരണം ഞാൻ ഒരു പത്ത് കൊ ഒരുപാട് വർഷമായി ഞാൻ കളക്ഷൻ തുടങ്ങിയിട്ട് ആ മക്കൾ ഇതിൻ്റെ എക്സിബിഷനിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് കാരണം അവർ ഇത് കൊണ്ടുപോയി എല്ലാ വർഷവും സ്കൂളിൽ തന്നെ എല്ലാ വർഷവും എക്സിബിഷനിൽ ഇത് വയ്ക്കാറുണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ പുതിയതായിട്ട് കിട്ടുന്ന കോയിൻസും നോട്ട്സും ഒക്കെ കളക്ട് ചെയ്യാറുണ്ട് പിന്നെ സ്റ്റാമ്പും എൻ്റെ പേരിൽ ഒരുപാടുണ്ട് പിന്നെ ഇതൊക്കെ തുടങ്ങിയതെന്ന് പറയുന്നത് തന്നെ ഞാൻ കുട്ടിക്കാലത്തൊന്നും എനിക്ക് ഇങ്ങനെയുള്ള സ്റ്റാമ്പും ഇതൊന്നും കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഈയിടയ്ക്ക് എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാനിതെല്ലാം കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് കാരണം പുള്ളിക്കാരൻ ഗൾഫിലായിരുന്നു അപ്പോൾ അയയ്ക്കുന്ന കത്തിലൊക്കെ ഈ സ്റ്റാമ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അതെല്ലാം കളയാൻ മടിച്ച് കീറി കീറി വെച്ചിരുന്നു വെച്ച് പിന്നെ അതിന് വേണ്ട ഒരു ബുക്ക് ഒക്കെ വാങ്ങിച്ച് അതിൽ അത് ഡിസ്പ്ലേ ചെയ്ത് വെച്ച് നല്ല ഭംഗിയാക്കി ഒക്കെ എടുത്തു അപ്പോൾ പിള്ളേർക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ അവരും സ്കൂളിലെ എക്സിബിഷനിലൊക്കെ കൊണ്ടുവയ്ക്കുകയും ഒക്കെ ചെയ്തു അവർക്കും കിട്ടുന്ന സ്റ്റാമ്പുകളൊക്കെ അവർ കൊണ്ടുത്തരും അതെല്ലാം ഞാൻ ഇപ്പോഴും ഞാൻ വയ്ക്കുന്നുണ്ട് പിന്നെ എന്നാലും കുട്ടികൾ വെച്ചതുകൊണ്ട് എനിക്ക് ഞാൻ അതിന് പങ്കെടുത്തില്ലല്ലോ എന്നുള്ള വിഷമം ഒന്നും എനിക്കില്ല കാരണം ആരെങ്കിലും അത് ഉപയോഗിച്ചല്ലോ നമ്മൾ വെച്ചിട്ട് വെറുതെ ഇല്ലാതായി പോവാതെ ആരെങ്കിലും അത് ഉപയോഗിക്കുന്നത് അല്ലേ നല്ലത് ഇപ്പോഴും എല്ലാ വർഷവും പിള്ളേർ കൊണ്ടുപോവാറുണ്ട് അവർക്ക് അത് വലിയ ഇഷ്ടമാണ് പിന്നെ പിന്നെ വേറെ റോക്ക് ഷോയിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല ഇത് സ്റ്റാമ്പും നാണയവും എനിക്ക് കളക്ഷനും ഉണ്ട് കുട്ടികൾ അതെല്ലാം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്